എൻ്റെ ഫോട്ടോ അതായതിപ്പം ഞാൻ ഇപ്പോഴൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇപ്പം എൻ്റെ ഫോട്ടോകളിലൂടെ ഇന്ത്യയെ കാണിക്കാനായിട്ട് ഒരവസരം ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പകർത്തുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടു പറയാം പിന്നെ ഇന്ത്യയിലെ കുറേ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകൾ അതായത് ഈ പിന്നെ ഈ മന്ത്രിമാരായിട്ടാണെങ്കിലും പ്രധാനമന്ത്രിമാരാണെങ്കിലും അവരൊക്കെ അവരെ കസേരയിൽ ഇരിക്കുമ്പോൾ ഇവർക്കൊന്നും അറിയില്ല അതായത് കുറേ ഉൾനാടുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് കുറേ പിള്ളേരൊക്കെ ഇപ്പോൾ ഇപ്പോഴും ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് പിള്ളേരുണ്ട് അതായത് ഈ മന്ത്രിമാരും ആരും അറിയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുനേരത്തെ ഭക്ഷണത്തിനു വരെ പിന്നെ ബുദ്ധിമുട്ടുന്നവർ നമ്മളൊക്കെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര സ്വർഗ്ഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പം അവരുടെ അവസ്ഥ ആ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഫോട്ടോയെടുത്ത് എനിക്ക് ഇന്ത്യയെ കാണിക്കണം എന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അതിലൂടെ ഇപ്പം ഞാനിപ്പോൾ അങ്ങനെയൊരു ഒരു ഫോട്ടോയെടുത്ത് അതിലൂടെ ചിലപ്പം പിന്നെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്കു നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതായത് അവരൊക്കെ ഇടപെട്ട് നല്ലൊരു ജീവിതം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്